ഇപ്പം മത്സ്യബന്ധനം എന്ന് പറയുന്നത് ഒരു നല്ല തൊഴിലാണ് കാരണം പാവപ്പെട്ട ഒരു മുക്കുവന്മാർ കടലിൽ പോയി നമുക്ക് നമുക്കുവേണ്ടി അവർ കഷ്ടപ്പെടുന്നു അവർക്കുവേണ്ടി അവർ കഷ്ടപ്പെടുന്നു മത്സ്യത്തെ പിടിക്കുന്നു ഇപ്പോൾ നമുക്ക് കൊണ്ട് തരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇപ്പം മലയാളികളുടെയാണെങ്കിൽ തന്നെയും അവരുടെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് കപ്പയും മീനും ആണല്ലോ അപ്പോൾ കപ്പയും മീനും ഒരു കോംബോ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ പ്പ മീനില്ലാതെ കപ്പ മാത്രം കഴിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ മത്സ്യബന്ധനം എന്ന് പറയുന്നത് നല്ലൊരു തൊഴിലാണ് അപ്പം അവർക്കുവേണ്ടി സഹായങ്ങൾ നമ്മള് ചെയ്ത് കൊടുക്കുക ഗവർണ്മെൻറ്റിനോട് ആവശ്യപ്പെടുക അപ്പോൾ അവർക്കുവേണ്ടി സഹായങ്ങൾ എന്ന് പറയുന്നത് അവർക്കു വേണ്ടുന്ന ബോട്ട് മുതലായ കാര്യങ്ങൾ കൊടുക്കുക വല അതിന്റെയൊക്കെ ടാക്സ് കുറച്ച് അല്ലെങ്കിൽ വില കുറച്ച് അവർക്ക് കിട്ടുന്ന രീതിയിലാക്കുക അല്ലാതെ അവർക്ക് പൈസ ഇല്ലാതെ അങ്ങനെ കൊടുക്കാനല്ല ഞാൻ പറയുന്നത് പിന്നെ അവർക്ക് കുറച്ച് വില കുറച്ച് കൊടുക്കാം കാരണം നമുക്ക് വേണ്ടിയും കൂടിയാണല്ലോ അവർ കഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മളും അവരെ സഹായിക്കണം എന്നാണ് ഗവർണ്മെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത് പിന്നെ അവർക്ക് കൂടുതലായും അവർക്ക് നല്ലൊരു തൊഴിലാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്കു വേണ്ടി അവർക്ക് കഷ്ടപ്പെടുമ്പോഴേക്കും നമ്മളും അവർക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടണമല്ലോ അപ്പം അവർക്കു വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് അത്യാവശ്യം ഭൂമി കൊടുക്കുക സ്ഥലം കൊടുക്കുക കാരണം മുക്കുവന്മാർ അതായത് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന അവർ കൂടുതലായും താമസിക്കുന്നത് കടലിൻ്റെ സൈഡിൽ ക് ക കടലിന്റെ അരികിലായിരിക്കുമല്ലോ അപ്പോൾ കൂടുതലായും കടൽ ക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ അവൾക്ക് അവർക്ക് കുറെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നു അപ്പം അതിനെ ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു രീതിയിൽ അവരെ നമ്മൾ സഹായിക്കണം പിന്നെ കൂടുതൽ തിര അടിക്കാതിരിക്കാൻ വേണ്ടി കുറെ മതിൽ തിട്ടകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വെള്ളം കരയിലേയ്ക്ക് വേലിയേറ്റ സമയമാകുമ്പോഴത്തേക്കും അവർക്ക് മാറി താമസിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സുരക്ഷാ സഹായം കൂടി നമ്മൾ ചെയ്തു കൊടുക്കണം എനിക്ക് ഗവൺ ഗവണ്മെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത്